ഒന്ന് ഞങ്ങള് നേരിടുന്നത് പ്ലാസ്റ്റിക്കിനെ സംസ്ക്കരണമാണ് അതിപ്പം ഹരിതസേന വഴി നമ്മള് പ്ലാസ്റ്റിക്കെല്ലാം സംസ്ക്കരിക്കുന്നുണ്ട് ഒരുപാട് മണ്ണൊലിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങള് മൂലം ഞങ്ങള് എന്താ പറയുക നമ്മള് പുല്ലെല്ലാം വെച്ച് പിടിപ്പിക്കണതുകൊണ്ട് മണ്ണൊലിപ്പിന് കുറച്ച് ശാശ്വത പരിഹാരമെന്ന് പറയാം പിന്നൊള്ളത് കാട്ടുമൃഗശല്ല്യമാണ് അതൊരു പാരിസ്ഥിക പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത് കാട്ടുമൃഗങ്ങളുടെ ശല്ല്യമാണ് കുരങ്ങകളക്കൊക്കെ നമ്മള് പടക്കം വെച്ച് ഓടിക്കാറാണ് പതിവ് പിന്നെ ആനകളെയും അതുപോലത്തന്നെയാണ് നമ്മള് പടക്കം വെച്ച് ഓടിക്കാറാണ് അവരെ ഉപദ്രവിക്കാറില്ല പിന്നെ നമ്മടെ മഴയൊക്കെ വരുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മള് മഴ വരുമ്പം എന്താ പറയുക കാറ്റൊക്കെ വരുമ്പം നമ്മള് എന്താ പറയുക നല്ല രീതിയിലിപ്പം നമ്മള് കൃഷിക്കാണെങ്കില് നമ്മള് നന്നായി കയറെല്ലാം കെട്ടിക്കൊടുത്ത് നന്നായി വൃത്തിയായിട്ട് നോക്കുന്നുണ്ട് അതുപോലത്തന്നെ അങ്ങനത്തുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മള് ഇങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്